നമ്മളുടെ പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊളോക്ക്യൽ ആയിട്ട് സംസാരിക്കുന്നതാണ് അത് നമ്മളുടെ മലയാളം വ്യാകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മളധികം സംസാരിക്കാറ് ഓരോരോ പ്രദേശത്തും ഓരോരോ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കാറ് ഇപ്പം ഉദാഹരണത്തിന് മലയാളത്തിൽ ഇജ്ജ് ഇജ്ജ് ഇജ്ജെങ്ങിടാ പോണ് അങ്ങനെയൊക്കെ ചോദിക്കും നീ എന്നുള്ളതിനാണ് ഇജ്ജ് എന്ന് പറയുന്നത് അതൊന്നും മലയാളത്തിൽ അർത്ഥവത്തായൊരു വാക്കല്ല പക്ഷേ നമ്മൾ കൊളോക്ക്യലായി പറയുമ്പോൾ ആ രീതിയിൽ വരുന്നു എന്നുള്ളത് മാത്രം